ഇന്നത്തെ കുട്ടികൾ നമ്മുടെ ഇപ്പോൾ വളർന്നുവരുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയങ്ങളിലാണ് പഠിക്കുന്നത് നമ്മുടെ മലയാളം മീഡിയത്തിൻ്റെയൊക്കെ ഇപ്പം എല്ലാം കുറഞ്ഞിരിക്കുകയാ അപ്പം മലയാള ഭാഷ ശരിക്കുള്ള ഭാഷ സംസാരിക്കാൻ അവർക്ക് അറിയത്തില്ല ഇങ്ങനെ സംസാരിക്കുന്ന ഭാഷയല്ലാതെ അച്ചടി ഭാഷയൊന്നും പറയാൻ അവർക്ക് അറിയത്തില്ല എഴുതാനും അറിയത്തില്ല കൂടുതൽ എല്ലാവരും ഇംഗ്ലിഷിലോട്ട് പോയത് കാരണം ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാനും ഇംഗ്ലീഷും അല്ല മലയാളവും അല്ലാത്ത രീതിയിലാണ് ഇപ്പത്തെ കുട്ടികളുടെ സംസാരം മലയാള ഇംഗ്ലീഷിലൂടെ മലയാളത്തെ അങ്ങ് ആവിഷ്കരിക്കുകയാ അവർ പഴയ ലിപികളൊക്കെയാണെങ്കിലും നമ്മുടെ ചില്ലക്ഷരങ്ങളോ അങ്ങനെയുള്ള അക്ഷരങ്ങളോ ഒന്നും അവർക്ക് എഴുതാൻ പോലും അറിയത്തില്ല പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പോലും ഇപ്പം അറിയാമോ എന്നുപോലും ദൈവത്തിന് അറിയാം അതുപോലും അവർക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ പുതിയതലമുറ വരുമ്പോഴത്തേക്ക് അവർക്ക് മലയാളത്തോട് അങ്ങനെ ചില്ലക്ഷരങ്ങളും അങ്ങനെ കൂട്ടക്ഷരങ്ങളൊക്കെ എഴുതാനൊന്നും അവർക്ക് അറിയത്തില്ല എന്നുള്ളതാ പഴയ അച്ചടി ഭാഷയിലൊന്നും ഇപ്പോഴത്തെ പിള്ളേരോട് സംസാരിക്കാനും പറ്റത്തില്ല പഴയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നും ഇല്ല മലയാളത്തിന് ശരിക്കുള്ള അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കാതെ വേറേ അർത്ഥങ്ങളാണ് ഇപ്പം മലയാളത്തിൻ്റെ ഓരോ വാക്കുകൾ അവർക്ക് ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ പുതിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പുതിയ അർത്ഥങ്ങളും കണ്ടുപിടിക്കുക അല്ലാതെ ശരിക്കുള്ള വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങളെ പോലും മാറ്റുക